പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലുള്ള പള്ളികളെന്ന് പറയുന്നത് ഭരണങ്ങാന പള്ളി കുടമാളൂർ പിന്നെ അത് പോലെ തീര്ഥാടന കേന്ദ്രങ്ങളായ ആലപ്പുഴ അര്ത്തുങ്കൽ അതുപോലെ പിന്നെ വേറെ പല പല മണ്ണാർക്കാട് പള്ളിയുണ്ട് പരുമലപ്പള്ളി ഉണ്ട് അതുപോലെ ക്രിസ്റ്റ്യന് ആരാധനാലയങ്ങൾ പലതുണ്ട് കോട്ടയത്തുണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ വേളാങ്കണ്ണി നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഏരിയയിലാണ് ഇതൊക്കെ നമ്മുടെ മത മതത്തെ ഊട്ടി ഉറപ്പിക്കുന്ന നമ്മുടെ സഭയെ അല്ലെങ്കിൽ നമ്മുടെ സഭയെ നമ്മുടെ മതത്തെ കൂടുതല് ഉജ്ജീവിപ്പിക്കുന്ന ചില ആരാധനാലയങ്ങളാണ് ദൈവത്തോട് നമുക്ക് ഭക്തി കൂടുതലായിട്ട് തോന്നാന് തോന്നത്തക്ക രീതിയിലാണ് അവിടുത്തെ എല്ലാ വിധ ആ ആരാധനാലയങ്ങളും ഈ അത്ഭുതങ്ങള് ഒക്കെ പലതും പ്രവര്ത്തിച്ച് ജീവിതത്തില് മനുഷ്യന് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് ഇത് വഴി സാധിക്കുന്നു അങ്ങനെ അവിടെ ഒത്തിരി അത്ഭുതങ്ങള് അവിടെ സാധിക്കുന്നു ആ അതുപോലെ തന്നെ ആലപ്പുഴയില് ഉള്ള പള്ളിയിലാണെങ്കില് ആ അവിടെ മാതാവിന്റെ പ്രത്യേക ആരാധനാലയമാണ് അവിടെ നമ്മള് ചൂലുകൊണ്ടു തൂത്ത് മാതാവിനോടുള്ള ആ ഭക്തി നമ്മള് കാണിക്കും തോറും മാതാവ് നമ്മളിലേക്ക് പ്രവര്ത്തിക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവിക്കപ്പെടുക അനുഭവപ്പെടുവാന് സാധിക്കും അതുപോലെ ഭരണങ്ങാനത്ത് അല്ഫോൺസാമ്മ ഭക്തി കേന്ദ്രമായ ഭരണങ്ങാനത്ത് ചെല്ലുമ്പോൾ കുടമാളൂര് തീര്ഥാടനമുണ്ട് ഇതെല്ലാം നമ്മുടെ ഭക്തി സാന്ദ്രമായ ചില നല്ല അനുഭവങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ മുതല്ക്കൂട്ടായിട്ട് തീരുന്നുണ്ട് അത്പോലെ തന്നെ ക്രിസ്റ്റ്യന് പള്ളികളെ കുറിച്ച് പറഞ്ഞു അത്പോലെ മുസ്ലീം പള്ളികളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പിന്നെ ക്ഷേത്രങ്ങളെന്നു പറഞ്ഞാൽ മീനാക്ഷി ക്ഷേത്രങ്ങളെ പോലെയുള്ള പല പല ക്ഷേത്രങ്ങൾ നമ്മുടെ മേഖലയില് നമ്മുടെ സംസ്ഥാനത്തുണ്ട് പിന്നെ എവിടെയാണ് തകഴി ഭാഗത്തുണ്ട് അതുപോലെ തന്നെ മറ്റ് പല പല ദേശത്ത് മുക്കിലും മൂലയിലും പള്ളികളും മോസ്കുകളും ഒക്കെയുണ്ട് ക്രിസ്റ്റ്യന് പള്ളികൾ ചങ്ങനാശ്ശേരി കോട്ടയം കുടമാളൂര് ഇങ്ങനെ പല പല സ്ഥലത്തെ ആശ്രമങ്ങളുണ്ട് ഗുരുക്കന്മാർ താമസിക്കുന്ന ആശ്രമങ്ങളെ അച്ചന്മാരുടെ ആരാധനാലായങ്ങൾ ഇതെല്ലാം ഉള്ള ഒരു ദേശമാണ് നമ്മുടെ സംസ്ഥാനം കേരളം കേരളം ഇത്രമേല് മുന്നില് വരണമെങ്കില് വിശുദ്ധ തോമാശ്ലീഹ സ്ഥാപിതമായ നമ്മുടെ ക്രിസ്റ്റ്യന് മാര്ത്തോമ ക്രിസ്റ്റ്യാനികളാണ് നമ്മള് അപ്പോൾ തോമസ്ലീഹ വന്നു സ്ഥാപിച്ച ഏഴര പള്ളികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഏഴെണ്ണം പാലയൂര് നിലിക്കില് കോട്ടക്കാവ് കൊക്കമംഗലം കൊല്ലം ഇവിടെ എല്ലായിടത്തും തോമാസ്ലീഹേയുടെ പിന്നെ എന്തുവാണ് പറയേണ്ടത് തോമാസ്ലീഹ സ്ഥാപിച്ച ഏഴര പള്ളികളിലൂടെ നമ്മള് കടന്ന് ചെന്നാല് അവിടെ എല്ലാം അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങള് കാണിക്കുന്നതായിട്ട് സാധിക്കും കാണാനായിട്ട് സാധിക്കും ഈ ഈ എല്ലാ മത ഗ്രന്ഥ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല നല്ല ദൈവ ഭക്തിയില് വളരുവാനുള്ള ആഹ്വാനമാണ് നമ്മൾക്ക് നല്കുന്നത്